അത് എന്തൊക്കെയാണെന്നു വച്ചാൽ ചില ചില മസാലക്കൂട്ടുകളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് കറി കറികൾക്ക് സ്വാദ് കുവുടാൻ വേണ്ടി പിന്നെ നല്ല നല്ല കറിയൊക്കെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കറിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ ചേരുവകളൊക്കെ പുതുതായി ചേർക്കും അപ്പോൾ ആ കറി കുറച്ചുകൂടി സ്വാദ് കൂടും അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ചേരുവകളിൽ കുറച്ച് കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർക്കാറുണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും വന്നു കഴിക്കുമ്പോൾ നല്ല സ്വാദുണ്ടെന്ന് ഒക്കെ പറയാറും ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കറിയ്ക്ക് മറ്റുള്ള കറികളിൽ നിന്ന് നമ്മളുടെ കറി നല്ല വേറിട്ട് നിൽക്കും എല്ലാവരും നല്ല കറിയാണെന്നു പറയുന്നതുപോലെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ കുറച്ച് മസാലകൾ നമ്മൾ പൊടിച്ചു ചേർക്കും അരച്ചു ചേർക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ പാചക രീതികൾ അമ്മയാണ് മെയിൻ ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ മെയിൻ അമ്മയാണ് ഇവിടെ